എനിക്ക് ഒരു ചെറിയ സഹോദരി ഉണ്ട് ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഒരുപാട് തരത്തിലുള്ള സാമ്യങ്ങളും അതുപോലെതന്നെ വ്യത്യാസങ്ങളും ഒരുപാടുണ്ട് മുഖ സാദൃശ്യം തന്നെയാണ് ആദ്യമായി പറയേണ്ടത് രണ്ടു പേർക്കും ഒരേ മുഖമല്ലെങ്കിൽ കൂടിയും മുഖഛായ അല്ലെങ്കിൽ കൂടിയും ഒരേ കണ്ണുകളും അതേ പോലെ ഒരേ തരത്തിലുള്ള പിരികവുവാണ് ഉള്ളതെന്ന് എല്ലാവരും പറയാറുണ്ട് കാണാൻ വളരെയധികം ഒരേപോലെയാണെന്നാണ് മറ്റുള്ളവർ പറഞ്ഞതെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു സാമ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നിരുന്നാൽ കൂടിയും ഞങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെയധികം സാമ്യയതയോടു കൂടിയാണ് ചെയ്യുന്നത് ഞങ്ങൾ നടക്കുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും പലപ്പോഴും വളരെയധികം സാമ്യം ഉണ്ട് എന്നാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അതുപോലെതന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചെയ്യാൻ താല്പര്യമുള്ള ചില കാര്യങ്ങളും ഒരേ പോലെയാണ് അതായത് നൃത്തം ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ തരത്തിലുള്ള സിനിമകളും പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഭക്ഷണ രീതികളും അതുപോലെ തന്നെയാണ് വളരെയധികം പുതിയ പുതിയ സാധനങ്ങൾ ശ്രമിച്ചു നോക്കാൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടമാണ് അതുപോലെത്തന്നെ പുതിയ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുവാനും പാചകം ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഞങ്ങളുടെ പല കാര്യങ്ങൾക്കും നല്ല നല്ല വ്യത്യാസങ്ങളുണ്ട് ഒന്ന് പഠനത്തിൽ ഞങ്ങൾ കാണിക്കുന്ന ഒരു പ്രത്യേക അതായത് ഇൻട്രസ്റ്റ് എന്നു പറയുമ്പോൾ എനിക്ക് കൂടുതൽ ടെക്നോളജിക്കലി ഉള്ള കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം സാങ്കേതികപരമായ കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് എന്നാൽ അവൾക്ക് കൂടുതൽ പാചകം ചെയ്യാനാണ് താല്പര്യം അവളിന്ന് ഹോട്ടൽ മാനേജ്മെൻ്റിൻ്റെ കോഴ്സ് പഠിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ആ രീതിയിൽ ഞങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട് അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന അതായത് ഒരു കാര്യങ്ങൾ വളരെ വൃത്തിയോടെ ആണ് അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ഞാൻ ആകട്ടെ അധികം വൃത്തിയില്ലാതെ പെർഫെക്ട് ആയി എനിക്ക് ചെയ്യാൻ സാധിക്കാറില്ല അപ്പോൾ അവൾ ചെയ്യുന്നതെല്ലാം സമയം കൂടുതൽ എന്നേക്കാൾ കൂടുതൽ സമയം എടുക്കുമെങ്കിലും ചെയ്യുന്ന കാര്യം ഏറ്റവും വൃത്തിയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത